വാർത്താ മാധ്യമങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മതിയായി കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് തീർച്ചയായും തോന്നുന്നില്ല കാരണം ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ തന്നെ നമുക്കറിയുന്നതാണ് ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ഒരുപാട് വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ടുതന്നെ അവർക്ക് മതിയായ ഇത് എന്താ പറയുക മതിയായ പ്രശ്നപരിഹരണം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അവരെ മതിയായി കാണിക്കുന്നില്ല ന്യു നമ്മളുടെ വാർത്താമാധ്യമങ്ങളൊന്നും കാരണം അവർക്ക് വേണ്ടത്ര വിലയോ ഒന്നും ലഭിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ കുടിവെള്ള പ്രശ്നം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇങ്ങനെ കച്ചവടക്കാർ തമ്മിലുള്ള പ്രശ്നം അതൊന്നും നന്നായിട്ട് മാധ്യമങ്ങളിൽ വാർത്തയാവുന്നില്ല അത് ഇനിയിപ്പോൾ ആരെങ്കിലും തന്നെ നല്ലോണം മുൻകൈയെടുത്ത് മുന്നിൽ വന്നിട്ട് ചെയ്യുകയാണ് ഒരു വാർത്ത നൽകുകയാണെന്ന് ഉണ്ടെങ്കിൽ കൂടി അത് ഒറ്റ ദിവസത്തെ വാർത്തക്കപ്പുറം ഒന്നും ആവാൻ പോണില്ല ആരും ഈ വേണ്ടത്ര വേണ്ടത്ര ശ്രദ്ധ നൽകാത്തൊരു കാര്യം തന്നെയാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഗ്രാമ പ്രദേശങ്ങളിൽ ഉള്ള പ്രശ്നങ്ങൾ വേണ്ടത്ര ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടുന്നില്ല വാർത്താമാധ്യമക്കാരായി കൊണ്ട് മാത്രമല്ല വേണ്ടത്ര നമ്മളുടെ മേലധികാരികളും അധികം ശ്രദ്ധിക്കാത്തൊരു വിഷയം തന്നെയാണിത് അതുകൊണ്ട് ഇതവരുടെ പ്രശ്നമായി തന്നെ കടന്നു പോവുകയെന്നല്ലാണ്ട് ഒന്ന് ഒന്നും സംഭവിക്കുന്നില്ല മാധ്യമങ്ങളിൽ ഒറ്റ ദിവസത്തെ ചർച്ചയ്ക്കപ്പുറം ഒന്നുമായി മാറുന്നുകൂടി ഇല്ല ഇതിലത്തേ നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഒരു പ്രശ്നം